ഇപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ സ്ഥലങ്ങളിലക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നെൽക്കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നെൽക്കൃഷി കൂടുതലായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഒരു മഴ ആ ടൈമിലാണ് കാരണം വെള്ളം നമുക്ക് കൂടുതലായിട്ടും ആവശ്യം ഉള്ളൊരു കാലാവസ്ഥയാണ് ആ ടൈമിൽ അപ്പോൾ അത് ആ ടൈമിൽ തന്നെ വെക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നെല്ല് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ആ മഴക്കാലത്താണ് നമ്മൾ കൂടുതലായിട്ട് നെൽക്കൃഷിയക്കെ ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് കറക്റ്റായിട്ട് പറയാണെങ്കിൽ ഏകദേശൊരു ജൂലൈ ആ ഒരു ടൈമിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടീട്ട് അങ്ങനാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഓണത്തിനോടനുമ്പന്ധിച്ച് നമുക്ക് ഈ നെല്ല് കൊയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പെട്ടന്ന് പറ്റുന്നതാണ് പക്ഷേ ഇപ്പമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അ ഈ ടൈമില് വെക്കാൻ പറ്റിയ വിളകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഇത് വരുന്നില്ല പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റംബുട്ടാൻ അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു വേ മഴക്കാലത്ത് ആ ടൈമില് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മുളച്ചു വരാനും അങ്ങനത്തെ കാര്യങ്ങൾക്കക്കെ പെട്ടന്ന് വിളവെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വാഴക്കൃഷി വാഴക്കൃഷി ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ വേനൽക്കാലത്തും ചെയ്യാം അത് പിന്നെ അങ്ങനത്തെ ടൈമ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ ചെയ്യാം അതിന് നമ്മൾ വെള്ളം നമ്മൾ സ്പ്രിംഗ്ലയർ വെച്ച് അടിച്ച് കൊടുത്താൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കണം എന്നൊന്നും ഇല്ല നമ്മൾകറക്റ്റായിട്ട് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും അത് അനുയോജ്യമായിട്ടാണ് ഉള്ളത്